ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ട് വായിച്ചിട്ടുള്ളൊരു പുസ്തകം എന്നു പറഞ്ഞാൽ ബെന്യാമിൻ്റെ ആടുജീവിതം എന്നു പറയുന്ന പുസ്തകമായിരുന്നു എൻ്റെ ഒരു നിഗമനത്തിൽ അതുമാത്രമാണ് യഥാർത്ഥ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തും മീൻസ് താരതമ്യേന അതുമായിട്ട് ബന്ധമുള്ള ഒരു പുസ്തകം എന്നു പറയാൻ അത് മാത്രമേ ഉള്ളൂ അതായത് ഇവിടെനിന്ന് പുള്ളിയുടെ സ്വന്തം നാട്ടിൽ നിന്നും സാമ്പത്തികമായിട്ട് കുറച്ച് മുന്നേറ്റത്തിന് കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി അന്യ ഒരു രാജ്യത്തേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ജീവിതം ഒരു ആടിന്റെ ജീവിതം പോലെയാണ് തോന്നിയത് എന്നൊക്കെയാണ് പറയുന്നത് കാരണം അതുപോലെ ഭയങ്കര അവശനായിരുന്നു പുള്ളി ഭയങ്കരമായി പണിയൊക്കെ എടുത്ത് തളർന്ന് പുള്ളി അങ്ങനെ ജീവിച്ച് സാഹചര്യമൊക്കെയാണ് പുള്ളി ആ പുസ്തകത്തിലൂടെ പറയുന്നത് അതായത് ബഷീർ എന്നെങ്ങാണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കറക്ട് പേര് ഒന്നും ഞാൻ ഓർക്കുന്നില്ല അത്രയ്ക്ക് എന്താ പറയുക പുള്ളിക്ക് ഭയങ്കര അബദ്ധം എന്താ പറയുക അബദ്ധം എന്നല്ല ഭയങ്കര അവസ്ഥയായിട്ടാണ് അതിനകത്ത് ചിത്രീകരിച്ചിട്ടുള്ളത് ഒരാടിൻ്റെ ജീവിതവുമായിട്ടാണ് പുള്ളിയുടെ ജീവിതം അതിനകത്ത് കമ്പെയർ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാനിവിടെ പറഞ്ഞ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പുസ്തകം അതാണ്